ഉസ്ക്കൂളിൽ ചിത്രരചന മത്സരം എന്നു പഠിപ്പിച്ചതെന്നു പറയുമ്പോൾ സ്കൂളിലെ ടീച്ചർമാർ നമ്മള് ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുക പിന്നെ അങ്ങനെ ബോർഡിൽ വരയ്ക്കാൻ പഠിപ്പിക്കുക അങ്ങനെയൊക്കെയായിട്ട് നമ്മള് അതാണ് നമുക്ക് അറിയുന്ന ഏറ്റവും വലിയ ഇത് നമുക്ക് പഠിപ്പിച്ചു തരാൻ ആളുണ്ടെങ്കിലല്ലേ പഠിക്കാനാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഗുരുവാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അത് നമ്മള് പിന്നെ നമ്മുടെ കൂട്ടുകാരുമായി പിന്നെ നമ്മള് പങ്കുവെക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത